ഹലോ ഹലോ ആ ആ ആ വിളിക്കാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അർജ്ജുൻ്റെ ഈ കഴിഞ്ഞ വട്ടത്തെ ഞങ്ങൾ ടേം എക്സാം കഴിഞ്ഞതേ ഉണ്ടാവുന്നുള്ളൂ അപ്പം അർജ്ജുൻ്റെ പ്രോഗ്രസ്സ് റിപ്പോർട്ട് ഞാൻ വീട്ടിൽ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നോ അത് മാർക്ക് ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ തൃപ്തരാണോ തൃപ്തരല്ല അല്ലേ ഓക്കെ കണ്ടില്ലേ നല്ല വണ്ണം പഠിച്ചു കൊണ്ട് ഉണ്ടായിരുന്ന കുട്ടി ആയിരുന്നു ഇപ്പം കണ്ടില്ലേ മാർക്ക് എല്ലാം വളരെ മോശം ആയിരിക്കുക ആണ് കുട്ടി ഇപ്പോൾ ക്ലാസ്സിൽ ആണെങ്കിലും ആ അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെ ആണ് ഞങ്ങൾക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക പഠിപ്പിക്കാൻ പരമാവധി എല്ലാം അവരുടെ സംശയങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞ് കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷെ മൊബൈല് പോലെ ഒക്കെ ഉള്ളത് നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ മാതാപിതാക്കളല്ലേ ആ അർജ്ജുന് ആ ആ അപ്പം അതൊക്കെ കുറച്ച് നിയന്ത്രിച്ചാലേ ഇനി അവസാന പരീക്ഷ അടുക്കുവല്ലേ അതിൽ പാസ് ആയെങ്കിൽ അല്ലേ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോവാൻ പറ്റുകയുള്ളൂ വീട്ടിൽ വന്നിട്ട് അർജ്ജുൻ പുസ്തകം ഒക്കെ എടുത്ത് വായിക്കാറുണ്ടോ ആ വായിക്കാറുണ്ട് ആ വായിക്കാറുണ്ടെങ്കിലും അത് ഒന്നും പരീക്ഷയിൽ ഒന്നും കാണുന്നില്ല ഇപ്പം ക്ലാസ്സിൽ ശ്രദ്ധ ഇല്ല ഇപ്പം ടീച്ചറ് മറ്റ് പല ടീച്ചേഴ്സും അർജ്ജുനെ കുറിച്ച് ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട് മാർക്ക് എല്ലാം കുറവാണ് പണ്ടത്തെ പോലെ അല്ല നല്ല വണ്ണം പഠിച്ചു കൊണ്ട് ഇരുന്ന കുട്ടി അല്ലേ പണ്ടേ പണ്ട് പഠിക്കാത്തവർ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം എന്ന് വിചാരിക്കാം ഇത് നല്ല വണ്ണം പഠിച്ചിരുന്ന കുട്ടിയാണ് എന്നിട്ട് ആണ് ഈ വർഷം ഇങ്ങനെ മാർക്ക് ഷീറ്റിൽ ഒക്കെ ഇത്ര വളരെ കുറച്ച് മാർക്ക് കിട്ടിയത് ആ അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്യണം ഞങ്ങളിവിടെ പരമാവധി ഞങ്ങളെയും കൊണ്ട് ആവുന്നത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി വേണമെങ്കില് ട്യൂഷൻ ഒക്കെ വേണെങ്കിൽ ഇവിടെ നിണ്ണ് എടുത്ത് ഞങ്ങൾ സഹായിക്കാം ബാക്കി നിങ്ങൾ നോക്കുവാണെങ്കിൽ അവസാനത്തെ പരീക്ഷയിൽ വേണമെങ്കിൽ നല്ല മാർക്കോടെ കിട്ടും ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്

ഈ ഒരു സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റിന് നൂറ് രൂപ വച്ചിട്ട് കൊടുക്കും ആ പ്രധാനമായിട്ടും ആ ആ ആ ആ മാർക്ക് കുറവുള്ള സബ്ജക്റ്റിന് കൊടുത്താൽ മതി അല്ലേ വിഷയത്തിന് കൊടുത്താൽ മതിയല്ലോ അപ്പ നിങ്ങൾ അല്ല ഓരോ പഠിപ്പിക്കുന്ന ടീച്ചറ് തന്നെ ആയിരിക്കും ട്യൂഷൻ എടുക്കുന്നത് അപ്പം ഏത് വിഷയത്തിനാണ് ട്യൂഷൻ വേണ്ടതെന്ന് നിങ്ങൾ ഒരു ദിവസം കുട്ടിയെ കൂട്ടിയിട്ട് എന്നെ വന്ന് കാണൂ അപ്പം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം കേട്ടൊ

ആ നാലര വരെ അല്ലേ ക്ലാസ്സ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നാലര തൊട്ട് അഞ്ചര വരെ ആയിരിക്കും ട്യൂഷനുള്ളത് ആ ആ എന്നിട്ട് അഞ്ചര ആവുമ്പം വീട്ടിലേക്ക് പോകാം ഓക്കെ ഓക്കെ ശരി ശരി